എന്നെ സംബന്ധിച്ചിടത്തോളം സയൻസ് എന്ന സബ്ജക്റ്റ് വളരെ ടഫ് ആയിട്ടുള്ളതാണ് ഇതിന് വേണ്ടി മാത്രമായിട്ട് എല്ലാ കുട്ടികളും സയൻസിന് വേണ്ടി മാത്രമായിട്ട് ട്യൂഷന് പോകുന്നുണ്ട് അതിൽ ഏറ്റവും വലിയ പാടുള്ളതാണ് മാത്സ് എന്ന് പറയുന്നത് അതിന് എതിരെ പ്ലസ് വൺ പ്ലസ് ടു എന്ന ഹയർ സെക്കണ്ടറി സ്കൂളുകൾക്ക് അതിനെതിരെയുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള കംപ്യൂട്ടറിൽ ചെയ്യേണ്ടതായിട്ടുള്ളതുണ്ട് സയൻസ് എന്ന് പറയുമ്പോൾ കൂടുതൽ നമ്മൾ പഠനത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് കൊണ്ടിരിക്കേണ്ടതാണ് പിന്നെ അതിന് ബയോളജി കെമിസ്ട്രി ഫിസിക്സ് അതിനെതിരെ കുറേ ലാബുകളും എല്ലാമുള്ളതാണ് നമ്മൾ ഫുൾ ടൈം അതിനനുസരിച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാലാണ് നമുക്ക് കൂടുതൽ സയൻസിന് എന്ന സബ്ജക്റ്റ് എടുക്കുമ്പോൾ പഠിക്കേണ്ടി വരുന്നത്